പെട്രോളിൻ്റെ ഈ വിലവർധന അഥവാ ഈ അമിതമായിട്ട് പെട്ടെന്നുള്ള നല്ല തോതിലുള്ള വിലവർദ്ധന എന്നുള്ളത് ബൈക്ക് യാത്രയിൽ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ലോങ്ങിൽ ആണെന്നുണ്ടെങ്കിലും ലോങ്ങ് പോകാനുള്ളതാണെന്നുണ്ടെങ്കിലും ബൈക്ക ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പൊക്കെ പോവുമ്പോൾ തന്നെ ബൈക്ക് ഉപയോഗിച്ചായിരുന്നു ലോങ്ങിൽ നല്ലൊരു ലോങ് ഉണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെ ഉപയോഗിച്ചായിരുന്നു ഇപ്പം നമ്മൾ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകാനാണെന്നുണ്ടെങ്കിലൊക്കെ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ഈ നമ്മൾ ഈ കാസർഗോഡിൽ നിന്ന് ഊട്ടിയിലേക്ക് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തു നിന്ന് ഊട്ടിയിലേക്ക് പോവാനൊക്കെ ബൈക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ പെട്രോളിൻ്റെ വില കാരണം നമ്മടെ ഒരു ടൂറ് പ്ലാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോഴോ ഒരു ഫൈനാൻഷ്യൽ ആയിട്ട് അത് നമ്മൾ കൺസേൺ ചെയ്തുകൊണ്ട് നമ്മളൊന്നെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മാറ്റാണ് നമ്മൾ ചെയ്യുന്നത് ഈ ബൈക്ക് റൈഡിൽ നമ്മൾ എന്ത് ചെയ്യും ട്രെയിൻ മാർഗം പോവാാൻ പറ്റുകയാണെങ്കിൽ ട്രെയിൻ പോകുന്ന ഏരിയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ്സൊക്കെ ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഈ ബൈക്ക് റൈഡേഴ്സിൻ്റെ കാര്യത്തിൽ പെട്രോളിൻ്റെ വിലവർധന നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ ഈ അമിതമായിട്ടുള്ള ഈ ഇന്ധന ഉപയോഗം പരിസ്ഥിതിക്ക് പല രീതിയിലും ഹാനികരമാവുന്നുണ്ട് ആ അവസരത്തിൽ ഈ പെട്രോളിൻ്റെ വിലവർധന ഒരു നിലക്ക് ഉപകാരത്തിലേക്ക് വരുന്നുണ്ട് ആ ഒരു വശത്തിലൂടെ നോക്കുമ്പോൾ കാരണം ഈ വിലവർധനയോടു കൂടെ ഒരുപാട് ആളുകൾ എന്താണ് ഈ ഈ ഇന്ധനം ഉപയോഗിച്ചിട്ടുള്ള പെട്രോള് പെട്രോളൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ പരിസ്ഥിതി എടുക്കുന്നതാണല്ലോ ഈ ഫോസിലിൽ നിന്ന് എടുക്കുന്നതായതു കൊണ്ട് തന്നെ ഈ ഫോസിലുകളൊക്കെ തീരാനായിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു പോകുന്ന എനർജികളിൽ പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് നല്ല മോശമായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിക്കും എന്നത് ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിൽ നിന്ന് പെട്രോളിൻ്റെ വാഹനങ്ങളിൽ നിന്നും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുക അതുപോലെ തന്നെ ഹൈഡ്രജൻ ഉപയോഗിക്കുക അതുപോലെ തന്നെ എലക്ട്രിസിറ്റിയുള്ള വാഹനത്തിലേക്ക് ഇപ്പോഴത്തെ ഇങ്ങനെ വ്യാപകമായിട്ട് വരാൻ നിൽക്കുന്നുണ്ട് അതിലേക്ക് മാറുന്നത് തന്നെയാണ് ഒരു നിലയ്ക്ക് നല്ലത് ഈ പെട്രോളിൻ്റെ വിലവർധന ഇങ്ങനെ ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു മോശമായിട്ടുള്ള ഒരു ക്രിയയാണെന്നുണ്ടെങ്കിൽ കൂടി ഈ പരിസ്ഥിതിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ പെട്രോളിൻ്റെ ക്ഷാമവും അതൊക്കെ പെട്രോളിൻ്റെ മീൻസ് പരിസ്ഥിതിയിൽ നിന്ന് എടുക്കുന്ന ഫോസലിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതന്നല്ല ഈ പെട്രോള് അത് ഫോസിലുകളുടെ ഒക്കെ കുറവും ക്ഷാമമൊക്കെ പരിഗണിക്കുമ്പോൾ ഈ പെട്രോളിന് ൻ്റെ ഈ ഇന്ധന ഉപയോഗം പരിസ്ഥിതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ടും അതിൻ്റെ വില വർദ്ധന വർദ്ധന പരിസ്ഥിതിയുടെ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ അതൊരു നന്മയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് പരിസ്ഥിതിക്ക് വലിയ രീതിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന പുകയാണെന്നുണ്ടെങ്കിലും എയറിനും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനും ഒക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്